ഞാൻ ഉദ്ദേശിക്കുന്നത് കോഴി കാട അങ്ങനത്തെ ചെറിയ തരം മൃഗങ്ങൾ പക്ഷികൾ പോലത്തുള്ള അങ്ങനത്തെ വളർത്താനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ കോഴികളെ വളർത്തുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു മേൽക്കൂര ഉള്ള നല്ല കോഴി കൂടുകൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതായത് നായ ചേര പാമ്പ് പിന്നെ കീരി അങ്ങനത്തെ പിടിച്ച് കൊണ്ട് പോവുന്നവരെ പിടിച്ച് കൊണ്ട് പോവുന്ന തരം മൃഗങ്ങളുണ്ട് ആക്കുന്ന സംരക്ഷണം നല്ല കൂട് വേണം അവർക്ക് നല്ല മേൽക്കൂരയുള്ളത് മഴ കൊള്ളരുത് നല്ല ചൂടേൽക്കാൻ പാടില്ല മേൽക്കൂര ഉണ്ടാക്കി അതിന് മുകളിൽ തന്നെ ഞമ്മൾ ഈ കോയികൾക്ക് നല്ല പിന്നെ ഓല പനപ്പട്ട അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് മറച്ച് തണുപ്പ് കൊടുക്കണം നമ്മൾ കോഴികളുടെ ചൂട് കൂടിയാൽ കോഴികളുണ്ടാവില്ല അങ്ങനെ തണുപ്പ് അതേമാതിരി തീറ്റ ഗോ അങ്ങനെ നല്ല ഗോതമ്പൊക്കെ നല്ല നല്ല വെള്ളത്തിലിട്ട് പൊതിർത്തി ദിവസം ചതച്ച് കൊടുക്കുക അതായത് നല്ല പൊടി ആക്കാതെ ഒരു അര നുറുക്കിയുള്ള രൂപത്തിലാക്കി കൊടുത്താൽ അതേമാതിരി അവർക്ക് അട മുട്ട ഇട്ടാൽ അട കിടക്കാൻ നല്ല സൗകര്യമുള്ള അതായത് ഉമി ഉമി ഒക്കെ വെച്ച് നല്ല തവിട് പോലത്തുള്ള പൊടികൾ അങ്ങനത്തെ വെച്ച് നോക്കുക പിന്നെ അവർക്ക് ചൂടി അട ഇട്ട് കെട അട വെച്ച് കിടക്കുമ്പോൾ നല്ല നല്ല സംരക്ഷണം കൊടുക്കാൻ നമ്മൾ അവരെ അതായത് പേപ്പ അവർക്ക് ഒരു തരം പേനുകൾ ഉണ്ടാവും അതിന് സംരക്ഷിച്ച് നമ്മളെ ഈ പിന്നെ കൂറ ചോക്ക് പോലെ ഉള്ള അങ്ങനത്തൊക്കെ കൊണ്ടുന്ന് വരച്ച് കീടങ്ങളും പ്രാണികളേന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തി അപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക മുട്ട വിരിഞ്ഞ് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ചാകും അതൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ അവർക്ക് എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കണം കൂട്ടിൽ നല്ല എന്നും വെള്ളം പാത്രം ഒക്കെ നല്ല വൃത്തിയാക്കി കൂടെപ്പഴും വൃത്തിയാക്കി കൊടുക്കണം അവരുടെ പിന്നെ അതിൻ്റെ വേസ്റ്റുകളൊക്കെ മാറ്റി ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും അവരെ വേസ്റ്റുകളൊക്കെ മാറ്റി കൊടുത്ത് നല്ല വൃത്തിയുള്ള കൂടാക്കി എന്നും കൂട് വൃത്തിയാക്കി കൊടുക്കണം ശുദ്ധമായ വെള്ളം വെച്ചോടുക്കുക പിന്നെ കാറ്റ് കടക്കുന്ന രീതീലാണല്ലോ കൂട് നല്ല കാറ്റ് ദിശയിൽ കൂട് വെക്കണം അതേമാതിരി ചൂട് നല്ല ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് കൂടിൻ്റെ മുകളിൽ അതിൻ്റെ ഓല പനം പട്ട പട്ട അങ്ങനത്തെ കൂട് മറച്ച് കൊടുക്കണം നല്ല തണുപ്പ് കിട്ടാൻ അല്ലെ കോഴികൾ പെട്ടെന്ന് ചാകും അവർക്ക് ചൂട് നല്ലോണം ഏൽക്കാൻ പാടില്ല മയക്കാലാവുമ്പോൾ കൂട് നല്ല വൃത്തീലാക്കി കൊടുക്കണം ഞമ്മൾ അപ്പോൾ അവർ നല്ല ഉഷാറുണ്ടാവും അവർക്ക് മറ്റത് നല്ല തൂക്കൊക്കെ വന്ന് പെട്ടെന്നവർ ചാകും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കോഴികളെ വളർത്തുമ്പോൾ കോഴികളെ എപ്പോഴും നല്ല നല്ല പിന്നെ അതായത് നല്ല കമ്പി വേലി ഒക്കെ കെട്ടി സംരക്ഷിച്ച് അങ്ങനെ വേണം വളർത്താൻ അല്ലെങ്കിൽ കോഴികൾ അപ്പറത്തും ഇപ്പറത്തും പോയി അങ്ങനെ നായികൾ ഒക്കെ പിടിച്ചങ്ങനെ കൊണ്ട് പോകും ഈ പരുന്ത് പിന്നെ എർളാടി കോഴി കുഞ്ഞുങ്ങളൊക്കുണ്ടേ പെട്ടെന്ന് കൊത്തി പറന്ന് പോകും അപ്പം കോഴികളെ സംരക്ഷിക്കാൻ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാടകൾക്കും തന്നെ നമ്മൾ നല്ല ഇത് കൊടുക്കണം കാരണം കാടകൾക്ക് അത് നല്ല നല്ല ശുദ്ധമായ എന്നും വെള്ളം മാറ്റണം പിന്നെ അവരുടെ ഭക്ഷണം പറഞ്ഞാൽ തെനെയാണ് അതായത് കോഴി തീറ്റ പോലത്തെ ചെറിയ ധാന്യ പൊടിയാണ് അത് അവർ അത് കൂടുതലാകാൻ പാടില്ല അത് അവർക്ക് കണക്കുണ്ട് ഇപ്പോൾ നൂറ് കാടൊക്കാണെങ്കിൽ നമ്മളൊരു നാല് കിലോ അങ്ങനത്തൊക്കെ ആ അങ്ങനെയുത്തുള്ള ഭക്ഷണം കൊടുക്കാണ് ഒരുപാട് ദിവസം അത് രണ്ടും മൂന്നും നാലും വട്ടമായി നേരം നേരം അതായത് രാവിലെ ഉച്ചക്ക് ഒരു വൈകുന്നേരം രാത്രി അങ്ങനെ കുറച്ച് ആ നാല് കിലോ പൊടി നൂറ് കാടകൾക്ക് എത്ര കുറച്ച് കൊടുക്കാൻ അങ്ങനെ ആണ് കൊടുക്കാൻ പാട് പിന്നെ അവരുടെ വെള്ളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് നല്ല ഒരു വിറ്റാമിൻ എ കൂടിയതും വരുന്നുണ്ട് അത് ഇനി നമ്മൾ അവരുടെ ഈ മൃഗാസ്പത്രീ പോയി ഡോക്ടറെ കാണിച്ച് കണ്ട് ആ വിറ്റാമിൻ മരുന്ന് ഈ വെള്ളത്തിലേക്ക് ഡെയിലി പത്തുള്ളി ഒഴിച്ച് അങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ കാട പെട്ടെന്ന് ചാകും അവർക്ക് നമ്മളെ കാലാവസ്ഥ പിടിച്ചുക്കാൻ കയിലുലാ ഈ കാട വിരിയാൻ ചെറിയ കുഞ്ഞുങ്ങൾക്കെപ്പഴും ബൾബിട്ട് ചൂട് കൊടുക്കണം അവർക്കാദ്യമായിട്ട് ചൂ കാട വളരാൻ ചെറിയ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് വിരിയുമ്പോൾ നല്ല ചൂടാണ് വേണ്ടത് ബൾബൊക്കെ ഇട്ട്ങ്ങാണ്ട് ചൂട് കൊടുക്കണം വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞമ്മൾ അവരെ വെവ്വേറെ ആൺ ആൺ കാടകളെ വേറെ പെൺ കാടകളെ വേറെ ആക്കണം അല്ലെങ്കിൽ ആൺ കാടകൾ ഈ പെൺ കാടകളെ കൊത്തി പെട്ടെന്ന് കൊല്ലും കൊത്തി മുറിയാക്കും പെട്ടെന്നവർക്ക് ഇൻഫെക്ഷൻ വന്ന് മുറിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ചാകും അപ്പോൾ ഈ ആൺ കാടകളെ വേറെ കൂട്ടിലേക്ക് മാറ്റണം പെൺ കാടകളെ വേറെ കൂട്ടിലേക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ആൺ കാടകൾക്ക് കഴുത്തിൽ കുറച്ച് മുടി കുറവായിരിക്കും പെൺ കാടകളാണ് നല്ല കാണാനും നല്ല ഭംഗി ആയിരിക്കും അവരെ വേറെ മാറ്റി നിർത്തണം പിന്നെ അവർ മുട്ട ഇടുമ്പോൾ നെറ്റ് വല കെട്ടി കൊടുക്കണം മുട്ട കൂട്ടിൽ നിന്നിങ്ങനെ ഒഴുകി വരാൻ കണ്ട് താഴത്തേക്ക് ഒന്ന് ചരിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ വിറ്റാമിൻ മരുന്ന് കൊടുക്കണം മാസത്തിൽ ക്ലീനിം കൂടൊന്ന് ക്ലീനാക്കണം കൂട്ടിൽ ഒന്നും വേസ്റ്റുണ്ടാകാൻ പാടില്ല പിന്നെ ചൂടുള്ള കാടകൾ ഉണ്ടാകും പനിച്ചത് പനി വരുന്ന അവരെ മാറ്റി വേറെ കൂട്ടിലേക്കിടണം എന്നിട്ട് പനിക്കുള്ള മരുന്ന് കൊടുക്കണം ഇനി കോഴി ആണെങ്കിലും അതെ സിസ്റ്റം തന്നെ ആണ് അവരെ മാറ്റി കൂട് മാറ്റി കൊടുക്കണം അവർക്ക് മരുന്ന് ഡെയിലി ഒരു അഞ്ച് ദിവസെങ്കിലും തുള്ളി മരുന്ന് മൂന്ന് നേരം വെച്ച് കൊടുക്കണം അങ്ങനൊക്കെയുള്ള മൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയുക പിന്നെ അവരെ വളർത്തിയാലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിനെ വളർത്താണെങ്കിലും കാടേനെ വളർത്തുകയാണെങ്കിലും കോഴിനെ കാടേനെ ഇറച്ചി ഇറച്ചീൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം മുട്ട മുട്ട ഡെയിലി മുട്ട കിട്ടും ഇപ്പോൾ നമ്മൾ നൂറ് കാട ഒക്കെ നൂറ് മുട്ടേൻ്റെ കിട്ടും അതുപോലെ കോഴികളീന്ന് തന്നെ മുട്ട അവസ്ഥയുണ്ടെങ്കിൽ ഡെയിലി മുട്ട കിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അവർ നമുക്ക് തീറ്റ കൊടുത്താൽ മതി കൂട്ടിലിട്ട് വളർത്താം ഒരു ശല്യമില്ലവരെ കൊണ്ട് വേസ്റ്റൊയിവാക്കി കൊടുക്കണന്നൊള്ളൂ കൂ കൂടൊക്കെ വൃത്തിയാക്കി അതേമാതിരി ശുദ്ധമായ വെള്ളം കൊടുത്ത് എന്നും വെള്ളം മാറ്റി പാത്രം വൃത്തിയാക്കി വെള്ളം കൊടുക്കണം അങ്ങനെ ചെയ്തോടുത്താൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗം ആണ് ഇറച്ചിയും മുട്ടയും വിറ്റും കൊണ്ട് നമുക്ക് ഞങ്ങളെ ജീവിതത്തേക്ക് നല്ല വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇവരൊക്കുണ്ടായാൽ പ്രകൃതി നല്ല രസമാണ് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ കുറെ കോഴികളും കാടകളെ കണ്ട് കഴി നല്ല ഭംഗിയാണ് അവരെ കണ്ടിങ്ങനെ ആ കൂട്ടിലൊക്കെ പോയി ഇങ്ങനെ പെട്ടകൾ അങ്ങനെ പല സൈസ് കോഴികൾ അലങ്കാര കോഴികൾ പെട കോഴികൾ ഗിനി കോഴികൾ ഗിനി കോഴികൾ ഒക്കെയുണ്ട് പിന്നെ വെച്ചുണ്ടാക്കിയാൽ പാമ്പൊന്നും വരില്ല അതേമായിരി തുമ്പി കോഴികളുണ്ട് തുമ്പി കോഴികളൊക്കുണ്ടായാൽ നായ ചേര അങ്ങനത്തെ നമ്മളെ വീട്ടിലേക്ക് വരില്ല അവരുടെ

സൗണ്ട് കൊണ്ട് ഭയങ്കരം ശബ്ദം ആണവർക്ക് കരയുമ്പോൾ അങ്ങനെ ഇവരെ വളർത്തിയാൽ നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റാം ഇറച്ചി കൊടുത്തും മുട്ട കൊടുത്തൊക്കെ നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റാം